ഇപ്പോൽ നമ്മളൊരു വിഷയം വരയ്ക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി ഇഷ്ടത്തോടെ ആയിരിക്കും നമ്മൾ വരക്കുക ചിലപ്പോൾ ഇതിന് മുൻപുള്ള കണ്ടിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളെ കുറിച്ച് വസ്തുവോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിക്ചർ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയോ അങ്ങനെയായിരിക്കും നമ്മൾ ഒരു ഇത് വരക്കാൻ ശ്രമിക്കുന്നതു തന്നെ നമുക്ക് അത് വരക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് തോന്നുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു പിക്ചർ അവിടെ വരച്ച് എടുക്കുന്നത് നമ്മൾ അത് നം അതിനകത്ത് കാണുന്നതിലും അപ്പുറം നമ്മുടെ മനസ്സിൽ അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും ആ ധാരണ വെച്ചായിരിക്കും നമ്മൾ വരക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തന്നെ ചിലവർക്ക് ചില വിഷയങ്ങളോട് ഭയങ്കര താത്പര്യം ഉണ്ടെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ ഫുട് ബോൾ പ്ലേയേഴ്സ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും അപ്പം ആ ഒരു ഇത് വെച്ച് തന്നെ വരച്ച് പോകുന്നവരുണ്ട് ചില മൂവിസിൽ സിനിമ നടന്മാരെ ഇഷ്ടമുള്ളവർ ഉണ്ടാകും അപ്പം അതൊക്കെ വെച്ച് വരച്ച് പോകുന്നവരുമുണ്ട് അങ്ങനെ സ് മനസ്സിൽ ഇഷ്ടങ്ങൾ വെച്ച് വരക്കുന്ന ചിലർക്ക് പ്രകൃതി പ്രകൃതിനെ കുറിച്ച് ഭയങ്കര ഇഷ്ടമുള്ളവർ ആയിരിക്കും അതിനെ കുറിച്ച് അപ്പം പ്രകൃതിയായിട്ട് തന്നെ മിങ്കിൾ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെയായിരിക്കും അവർ വരക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ട് ആ ഇഷ്ടങ്ങൾ ആസ്പദമാക്കിയായിരിക്കും വരക്കുന്നത്